ഞങ്ങളുടെ എൻ്റെ വീട് ആലപ്പുഴയിലാണ് ഇവിടെ ഞങ്ങൾക്ക് ധാരാളം മീൻ കിട്ടാറുണ്ട് ഇവിടെ ധാരാളം വിനോദസഞ്ചാരികൾ വരാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ല രുചികരമായ ഒരു മത്സ്യമാണ് കരിമീൻ കരിമീൻ ഞങ്ങൾക്ക് മുളക് കറി വയ്ക്കാം വറുക്കാം അത് ഇലയിൽ പൊള്ളിക്കാം അതുപോലെ തന്നെ വർ അല്ലാതെ തന്നെ വറുക്കാം അതുപോലെ തേങ്ങാ അരച്ച് കറി വയ്ക്കാം ധാരാളം ഇഷ്ടമുള്ള ഒരു മീനാണത് അത് എല്ലാ വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന സാധനവുമാണ് അതുപോലെ തന്നെ മറ്റ് മത്സ്യങ്ങളെല്ലാം ഞങ്ങളുടെ ഈ ആ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ആറ്റിൽ നിന്നും കടലിൽ നിന്നുമൊക്കെ ധാരാളം മത്സ്യങ്ങൾ കിട്ടാറുണ്ട് ഞങ്ങൾ നല്ല രീതിയിലത് ഉണ്ടാക്കുകയും വിനോദസഞ്ചാരികൾ അതിവിടെ വന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ധാരാളം വസ് ഭക്ഷിച്ച് ആസ്വദിച്ചവർ പോവുകയും ചെയ്യാറുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് മത്സ്യം അവിടെ അനേകം സ്റ്റാളുകൾ ഉണ്ട് സ്റ്റാളുകളിൽ ഒത്തിരി വിനോദസഞ്ചാരികളും മറ്റുള്ളവരും വന്ന് ഈ ഭക്ഷണങ്ങളും ഈ മത്സ്യ മ് കറികളും അതുപോലെ വറുത്ത കറികളും എല്ലാം കൂട്ടി ധാരാളം പേർ ആസ്വദിച്ച് പോകാറുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഞങ്ങളുടെ ഈ ഫ ഈ മത്സ്യങ്ങൾ കഴിക്കുമ്പം എല്ലാവരും സന്തോഷത്തോടെയാണ് പോവുന്നത് ഞങ്ങൾ ധാരാളം മത്സ്യങ്ങൾ ഇവിടെ കിട്ടും കിട്ടുന്നുണ്ട് മറ്റ് മറ്റ് മത്സ്യങ്ങളും എല്ലാം ഇവിടെ കിട്ടാറുണ്ട് അതെല്ലാം വന്ന് വിനോദസഞ്ചാരികൾ കഴിക്കാറുണ്ട് ധാരാളം ആളുകൾ ഇവിടെ വരുന്നു ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് വരികയും അവർ സന്തോഷത്തോടെ തിരിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവർക്കിത് വിളമ്പുവാൻ കൊടുക്കുവാനും കാരണം ഞങ്ങൾ ഒത്തിരി ഈ മത്സ്യങ്ങൾ ഞങ്ങൾ അവർക്കത് പൊള്ളിച്ച് കൊടുക്കുമ്പോഴും മത്സ്യം കറി വെച്ച് കൊടുക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ സംതൃപ്തരാണ് ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് തോന്നാറുണ്ട് അതിലൂടെ ഞങ്ങളുടെ പ്രദേശത്ത് മറ്റ് മറ്റ് മത്സ്യങ്ങളുമുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമാണ് കരിമീൻ ആ കരിമീൻ ധാരാളം ആളുകൾ വന്ന് ഭക്ഷിക്കുന്നുണ്ട് എല്ലാ മത്സ്യങ്ങളും കടലിൽ നിന്ന് കിട്ടുന്നതുണ്ട് അതുപോലെ ആറ്റിൽ നിന്ന് അങ്ങനെ കിട്ടുന്ന മത്സ്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് വിളമ്പുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങൾ ഒത്തിരി സംതൃപ്തരാണ് വിനോദസഞ്ചാരികൾ വന്നത് വളരെ സന്തോഷത്തോടെ കഴിച്ച് അവർ പോകുന്നു അവർക്ക് ധാരാളം പിന്നെ എന്തുവാ പറയുക അവർക്ക് നല്ല രീതിയിലത് ഭക്ഷിച്ച് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അവർ വീണ്ടും വീണ്ടും ഈ ഒരു കാര്യത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുകയും ആ അത് ഞങ്ങൾ വീണ്ടും അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു അവർ എല്ലാവരും സ്റ്റാളിലായാലും അതുപോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന ഇടങ്ങളിലെല്ലാം പോയി അവർ ഭക്ഷിക്കാറുണ്ട് അവർക്ക് സന്തോഷത്തോടെ തിരിച്ച് പോവുന്നു അവർ വീണ്ടും വീണ്ടും ഈ ഒരു രുചിയിൽ അവർ വന്ന് ഭക്ഷിക്കുന്നു ഒത്തിരി ഞങ്ങൾക്ക് സന്തോഷം ഉണ്ട് അതിൽ ഞങ്ങൾ ഒത്തിരി സംതൃപ്തരും ആണ്